ഹലോ ഇത് ശരവണഭവൻ റസ്റ്റോറൻ്റ് അല്ലെ സംസാരിക്കുന്നത് അംബിക പാലക്കാട് നിന്നാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു ഗെറ്റ് ടുഗെതർ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് അടുത്ത ആഴ്ച്ച അടുത്ത വെള്ളിയാഴ്ചയാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പന്ത്രണ്ടു പേർക്കുള്ള ഫുഡ് കാര്യങ്ങളുമെല്ലാം റെഡിയാക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വിളിക്കുന്നത് ഞങ്ങൾ ഒരു പന്ത്രണ്ട് പേർക്കുള്ള ഫുഡ് വേണ്ടിവരും അതുപോലെതന്നെ നേരത്തെ തന്നെ ഇത് ബുക്ക് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വിളിക്കുന്നത് അപ്പോൾ അവിടെയുള്ള ഐറ്റംസിൻ്റെ മെനു ഒക്കെ ഒന്നു പറഞ്ഞാൽ കൊള്ളാമായിരുന്നു അതുപോലെതന്നെ മുൻകൂട്ടി വിളിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഞാൻ പന്ത്രണ്ടാം തിയ്യതിയിലത്തെ കാര്യം ആണല്ലോ അതായത് അടുത്ത വെള്ളിയാഴ്ച പന്ത്രണ്ടാം തിയ്യതീത്തെ കാര്യം ആണല്ലോ അപ്പോൾ അത് മുൻകൂട്ടി ബുക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇന്ന് വിളിച്ചത് അപ്പോൾ അവിടെയുള്ള ഓഫറുകളിനെക്കുറിച്ചും ഒന്ന് പറഞ്ഞു തരാമോ